ഞങ്ങൾക്ക് വീട്ടില് കുറേ ആചാരങ്ങളുണ്ട് പന്നെ കാരണം പിന്നെ പണ്ടുതൊട്ടേ അപ്പൂപ്പന്മാരും അച്ചച്ചന് അങ്ങനെ കൈമാറി കൈമാറി വന്നതാണ് ഇവിടെ അടുത്ത് നമുക്ക് അമ്പലമുണ്ട് അപ്പോൾ നമ്മള് അമ്പലത്തില് ഉത്സവം കഴിക്കാറുണ്ട് വീട്ടിലുള്ളവര് തന്നെയാണ് കഴിക്കാറ് പിന്നെ നൂലുകെട്ട് പിന്നെ ഉള്ളത് സാധാരണ പോലെത്തന്നെ ഉള്ളതാണ് കല്യാണത്തിന്റെ സമയത്തും അങ്ങനെത്തന്നെ വീട്ടില് ആചാരങ്ങള്ക്കും നമ്മള് ചെയ്തു വരുന്ന കുറേ ഇതുണ്ടല്ലോ പാരമ്പര്യങ്ങളുണ്ടല്ലോ അത് ഇന്നും ഇപ്പോൾ കാത്തു സൂക്ഷിക്കാന് ശ്രമിക്കാറുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ പീരിയഡ്സ് ടൈമിലൊക്കെ നമുക്ക് അങ്ങനെ അകത്തോ അടുക്കളയിലോ തീയുള്ളടുത്തോ അങ്ങനെ ഒന്നും പോവാന് പറ്റില്ല റൂമിൽത്തന്നെയാണ് ഇപ്പോഴും അങ്ങനെത്തന്നെ എത്ര പുരോഗമനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും തറവാട്ടിൽ വന്നിട്ടുണ്ടെങ്കില് അതിപ്പോഴും അനുഷ്ഠിക്കുന്നുണ്ട് നമുക്ക് വിളക്ക് വയ്ക്കാന് പറ്റില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ